ഇപ്പോൾ പാചക സമയത്ത് നമുക്ക് അനിവാര്യമായിട്ടുള്ള സാധനമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ആവശ്യമുള്ളത് പല രീതിയിലുള്ള ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം മെഷീൻസും കൊണ്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് പറയാം നമുക്കിപ്പോൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പു കത്തിക്കണം വേ വിറക് വേണം അങ്ങനത്തെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒക്കെയുണ്ടാകും അതിന് മണ്ണെണ്ണ ഇപ്പം മണ്ണെണ്ണയൊന്നും അങ്ങനെ കിട്ടാനില്ല കാരണെമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയ്ക്കും കാര്യങ്ങൾക്കൊക്കെ വില കൂടിയതു കൊണ്ട് മണ്ണെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാസിൻ്റെ അടുപ്പും ഗ്യാസ് കുറ്റിയും അതാണ് മെയിനായിട്ട് വേണ്ടത് നമുക്ക് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിലുള്ള ഒരു ഗ്യാസടുപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സി നമുക്കെപ്പോഴും അരകല്ലിലൊക്കെ അരക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണന്താണെന്ന് വെച്ച്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി കാര്യങ്ങളൊക്കെ വന്നതു കൊണ്ട് കൂടുതലായിട്ടും മിക്സി കാര്യങ്ങളൊക്കെ വേണം പിന്നെ ഗ്രൈൻഡർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ അരി അരി അരയ്ക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തേങ്ങ ചുരണ്ടുന്ന മഷീനും കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും മെയിനായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഈ മഷീൻസ് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് കൂടുതലായിട്ടും